നമ്മുടെ ഇന്നത്തെ മാധ്യമം പ്രവർത്തനം എന്നുപറയുന്നത് മുൻപത്തേക്കാളും മെ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മെച്ചപ്പെട്ടിട്ടില്ല എന്നുതന്നെ പറയാം കാരണം മുൻപത്തെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന ചാനലുകൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളും മറ്റും വിശ്വസനീയമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് പ്രസിദ്ധീകരിക്കുന്ന വർത്തകളാകട്ടെ വരുന്ന വിവരങ്ങളാകട്ടെ എന്ത് തന്നെയാണെങ്കിലും അതിലൊരു വിശ്വാസ് വിശ്വസനീയമായ കാര്യങ്ങൾ വളരെ കുറവാണ് ചില കാര്യങ്ങളിൽ അവരായിട്ട് ഉണ്ടാക്കിയെടുത്തതായിരിക്കും അല്ലെങ്കിൽ പ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അതിൽ പൊടിക്കൈകൾ ചേർക്കുന്നത് പോലെ ഒക്കെ തോന്നാറുണ്ട് അതുമല്ല ഗ്രാമീണ വാർത്തകൾ എന്ന് മാത്രമല്ല എന്ത് വാർത്തകൾ തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്രാമീണ വാർത്തകൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഗ്രാമീണ വാർത്തകൾ എടുക്കുമ്പോൾ അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളിൽ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള ഒരു സംശയം തന്നെ ഇന്നത്തെ ജനങ്ങളിൽ വന്നുപോകുന്നു അതുമല്ലാതെ മുൻപത്തെക്കാളും ഇന്ന് കുറേ ഏറെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ ചാനലുകൾ പ്രവർത്തിക്കുന്നുമുണ്ട് ഇതിൽ ഏത് മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ ഏത് മാധ്യമ ചാനലുകളെ വിശ്വസിക്കണം അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളതിൽ ഇന്ന് ജനങ്ങൾക്ക് യാതൊരു വിധ ഉറപ്പുമില്ല സത്യസന്ധമായിട്ട് വാർത്തകൾ പുറത്തുവിടുന്ന ചാനലുകളുമുണ്ട് എന്നാൽ ഇന്നത്തെകാലത്ത് മിക്കതും സത്യസന്ധമായിട്ടല്ല വാർത്തകൾ പുറത്തുവിടുന്നത് അവർക്ക് ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ജനശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടും സത്യസന്ധമായിട്ടല്ലാത്ത കാര്യങ്ങൾ കെട്ടിപ്പടുത്തും ഉണ്ടാക്കിയും ഇല്ലാത്ത ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുവെന്നും അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ചുമത്തപ്പെട്ടുമെന്ന് പറഞ്ഞിട്ട് വളരെ കുഞ്ഞായിട്ടുള്ള ചെറിയൊരു കാര്യത്തെ വ പെരുപ്പിച്ച് വലുതാക്കി കാട്ടുന്നത് പോലെ പല മാധ്യമ പ്രവർത്തകരും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അത് മാത്രമല്ല മാധ്യമ പ്രവർത്തനങ്ങൾ പ്രവർത്തകർക്ക് ജനജീവിതത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടെന്നുതന്നെ പറയാം ഇന്ന് ഒരു മാധ്യമ പ്രവർത്തനത്തിൽ മാധ്യമത്തിൽ വരുന്ന ഒരു വാർത്ത അത് സത്യമാണോ കള്ളമാണോ എന്ന് പരിശോധിക്കാതെ തന്നെ വിശ്വസിക്കുന്ന ജനങ്ങളും ഉണ്ട് പരിശോധിക്കാതെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് പറയുന്ന വാർത്ത നാളെ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഇന്ന് കണ്ടയാൾ നാളെ കാണണം എന്നില്ല അപ്പോൾ അവർ കരുതുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഇതിങ്ങനെ നടന്നു എന്നുള്ളതിൽ വീണ്ടുമൊരു രണ്ടാം അഭിപ്രായത്തിന് വേണ്ടി നിൽക്കുന്നില്ല അറിയുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ഈ മാറ്റിപ്പറഞ്ഞ കാര്യങ്ങൾ ആരും അറിയില്ല അപ്പം കഴിവതും ഒരു മാധ്യമ മാധ്യമത്തിൽ അല്ലെങ്കിൽ മാധ്യമ ചാനലുകളിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അറിയ ജനങ്ങളെ അറിയിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നതിൽ തൊണ്ണൂറ് ശതമാനം എങ്കിലും നൂറ് ശതമാനം പോട്ടെ കഴിവതും ഒരു തൊണ്ണൂറ് ശതമാനം എങ്കിലും പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഈ രണ്ടാമത് നിങ്ങൾ തിരുത്തി പറയേണ്ട ആവശ്യം വരുന്നില്ല ഈ തിരുത്തി പറയുന്ന അവസരത്തിൽ ജനങ്ങൾ അറിയണമെന്നുമില്ല അപ്പോൾ ആദ്യം കണ്ട വാർത്തയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുനിൽക്കുകയും ചെയ്യും അങ്ങനെ ആവുമ്പോൾ ഒരു തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ആയിരിക്കും ജനങ്ങളിൽ എത്തുക ശരിയായിട്ടുള്ള കാര്യങ്ങൾ അതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയുന്നത് കഴിവതും ഒരു വാർത്ത നിങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു വിവരം ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അത് കഴിവതും പരിശോധിച്ച് അന്വേഷിച്ച് നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം എങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക ചാനലുകളെ മാധ്യമ പ്രവർത്തകനെയോ അല്ലെങ്കിൽ ചാനലുകളെയോ ഉദ്ദേശിച്ചുള്ള ധർമം എന്ന് പറയുന്നത് നിങ്ങൾ ജനങ്ങളിലേക്കെത്തിക്കുന്ന വാർത്തകൾ സത്യമല്ല അല്ലെങ്കിൽ അത് ഫേക്ക് ആണെന്ന് വരുമ്പോൾ ജനങ്ങളിലേക്ക് ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ആ തെറ്റിദ്ധാരണ തിരുത്താൻ നിങ്ങൾ അവസരം കണ്ടെത്തിയാൽ പോലും ആ അവസരത്തെ അവർ കാണണം എന്നില്ല നിങ്ങൾ തിരുത്തിയാൽ പോലും ആ അവസരത്തിൽ അവർക്കത് കാണ കാണാനോ അല്ലെങ്കിൽ ഉൾക്ക് ഉൾക്കൊള്ളാനോ ഉള്ള അവസരമില്ല അല്ലെങ്കിൽ സാഹചര്യം ഇല്ലായിരിക്കാം അങ്ങനത്തെ അവസരത്തിൽ എന്ത് പറ്റും അവരാദ്യം പറഞ്ഞ ആ ഒരു തെറ്റിദ്ധാരണയായ ഇൻഫൊർമേഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയും ചെയ്യും ഈ നിങ്ങൾ മാറ്റിപ്പറഞ്ഞ കാര്യം അറിയുകയുമില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പറയുകയാണെങ്കിൽ നാളെ നിങ്ങൾ കുറ്റം ചുമത്തിയ വ്യക്തി നിരപരാധി ആണെന്ന് നിങ്ങൾ തിരുത്തി പറയുമ്പോൾ ഈ തിരുത്തിപ്പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയണമെന്നുമില്ല കഴിവതും നിങ്ങളൊരു മാധ്യമ ചാനൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ ഏർപ്പെടുന്ന സമയത്ത് വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉചിതമായിരിക്കും എന്നും തോന്നുന്നു